നീന്തൽ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ ഒരു എക്സസൈസ് ആണ് നീന്തിയാൽ ശരീരത്തിലുള്ള എല്ലാ മസിലുകളും നീന്തലിൽക്കൂടി നമുക്കതിനുള്ള വ്യായാമങ്ങൾ കിട്ടുന്നതാണ് ഇങ്ങനെ ഏറ്റവും നല്ലൊരു എക്സർസൈസ് എന്ന നിലക്ക് നീന്തൽ സ്വിമ്മിങ്ങ് കൂടുതൽ നമ്മളുടെ ശ്വാസ നിയന്ത്രണത്തിന് എല്ലാം സഹായകമാകുന്നതാണ് ഇത്തരം എസൈസുകൾ എപ്പോഴും നല്ലതാണ് ഞാൻ നീന്തൽ സ്വിമ്മിങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരേ ഒരാളാണ്

കൂടുതലും നമ്മുടെ ശരീരത്തിന് അത് ഉപയോഗപ്രദമായ ഒരു വ്യായാമം ആയതു കൊണ്ട് ഞാൻ ഇടക്കൊക്കെ സ്വിമ്മിങ്ങ് ചെയ്യാറുള്ള വ്യക്തിയുമാണ്